സ്മാർട്ട് ഫോൺ വന്നതിൽപ്പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തിനും പുറത്തു പോകേണ്ടാത്തൊരവസ്ഥയാണ് കാരണം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽപ്പോലും നമ്മൾ സ്മാർട്ട് ഫോൺ വഴി വിളിച്ച് ബുക്ക് ചെയ്യാം അതു നമുക്ക് എന്നത്തേനാണ് എപ്പോഴാണ് ഏതു സമയമാണ് അതെല്ലാം അന്വേഷിക്കുകയും അതൊക്കെ നോക്കുകയും അതന്വേഷിച്ച് നമുക്കത് ബുക്ക് ചെയ്യാം നമ്മുടെ കയ്യിലെല്ലാം കിട്ടും നമുക്ക് പിന്നേ അതിനു വേണ്ടി സമയം വേസ്റ്റാക്കേണ്ടിയ കാര്യമില്ല അപ്പോഴൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്യണ റൂം ബുക്ക് ചെയ്യണം നമ്മൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണ് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കു വേറെ ആ ആ പ്രദേശത്ത് അറിയുന്നവരാരും ഇല്ല അപ്പോൾ നമുക്ക് അവിടെത്തേയിതൊക്കെ ലൊക്കേഷനൊക്കെ നോക്കി നമ്മളേതെല്ലാം എവിടെയാണ് പോകുന്നത് അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്നും എല്ലാം അന്വീഷിക്കുകയും അതൊക്കെ അന്വേഷിച്ച് അതനുസരിച്ച് ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോഴൊരു ഷോപ്പിങ്ങിനു പോകുന്നു ഷോപ്പിംഗിനു പോയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ തികയുന്നില്ല നമുക്കുടനെയത് നമുക്ക് ഷോപ്പിംങ്ങിൽ വെച്ചേ നിന്നിട്ട് നമുക്കത് പിന്നേ പേ ഗൂഗിൾ പേ ചെയ്യുകയും അതിനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ടാകും ഉണ്ടാക്കുന്നു ബാങ്കിങ്ങ് ബാങ്കിങ്ങ് ഏർപ്പാടൊക്കെ ആയാലും എന്തായാലും ഇപ്പം പൈസ വേറുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ വേറെ നമുക്കിപ്പം മക്കളൊക്കെ ദൂരെ നിൽക്കാ ദൂരെയാണ് അവർക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണമെങ്കിൽ അവർക്കു വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനുള്ള പൈസയൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ എല്ലാ ഈ വേണം ശരിക്കും പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണും അതുമൊക്കെ വന്നതിൽപ്പിന്നെ നമുക്കു വേറെയുള്ള കാര്യത്തിനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട എന്നുള്ളൊരു കാര്യം സത്യാ വണ്ടിക്കൂലിയും കൊടുത്തു ക്ഷീണിച്ചു നടന്ന് വിഷമി ബുദ്ധിമു വണ്ടിയും കയറി വള്ളവും കയറി പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്കിതുവഴി നമുക്ക് ബുക്ക് ചെയ്യുകയും ആ കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അത് എത്രയും പെട്ടെന്ന് എല്ലാ സൗകര്യമുണ്ടാക്കിത്ത ഉണ്ടാക്കിയാണ് സ്മാ ഈ സ്മാർട്ട് ഫോൺ ഇൻറ്റർനെറ്റൊക്കെ ഉപയോഗിച്ചു നല്ല ഒത്തിരി നല്ല ഒരു കാര്യമാണ്